തയ്യല് നമ്മള്ക്ക് ഏറ്റവും പ്രയോജനമുള്ള ഒരു കാര്യമാണ് നമ്മുടെ വീടുകളിൽ നമുക്കിപ്പോള് വീട്ടിലെ രാവിലെ വീട്ടിലെ എണീറ്റു രാവിലെ പണികളെല്ലാം കഴിഞ്ഞു പിള്ളേരെ സ്കൂളില് വിട്ട് അതിന് ശേഷം നമ്മുടെ വീട്ടിലെ രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞതിനു ശേഷമൊരു പത്ത് പതിനൊന്നുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തുടങ്ങി ഒരു ഒരുമണിവരെയൊക്കെയിരുന്ന് നമ്മള്ക്ക് വേണ്ട ആവശ്യങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ തയ്ച്ചെടുക്കുകയും അതുകഴിഞ്ഞിട്ട് പിന്നെ ഊണു കഴിഞ്ഞു കുറച്ചു നേരം റെസ്റ്റെടുക്കുകയും അതു കഴിഞ്ഞിട്ട് പിന്നെയൊരു മൂന്നുമണിക്ക് തുടങ്ങിയാല് ഒരു നാലുമണി നാലുമണിവരെ പിള്ളാരുവരുന്ന സമയമാവുമ്പോഴത്തേനുമനുസരിച്ച് എന്തെങ്കിലും തയ്ക്കാനുള്ളതൊക്കെ തയ്ച്ചേക്കുവാണെങ്കില് അതിനനുസരിച്ചുള്ള നേട്ടം കിട്ടും അല്ലാതെ അതിനുവേണ്ടി മാത്രമായിട്ട് മാറ്റി സമയം കണ്ടെത്തുവല്ല നമ്മുടെ വീട്ടാവശ്യങ്ങള് കഴിഞ്ഞിട്ട് വീട്ടിലെ പണികള് കഴിഞ്ഞിട്ട് നമുക്കതിനിടയ്ക്ക് ഇതിന് സമയം കണ്ടെത്തി നമ്മള് തയ്ച്ചെടുക്കും അങ്ങനെ ഏറ്റവും നല്ലൊരു കാര്യമാണ് തയ്യലെന്ന് പറയുന്നത് അത് വേണ്ട അതിനനുസരിച്ച് നമുക്കെന്തെങ്കിലൊക്കെ നേട്ടം കിട്ടുകയും ചെയ്യും അങ്ങനെ നല്ലൊരു ഇതാണ് തയ്ക്കുന്നത് തയ്ക്കാൻ പറ്റുമെങ്കില് അങ്ങനെ ഏറ്റവും നല്ലൊരു പണിയാണ് നമ്മള്ക്ക് വെളിയിൽ പോകുകയും വേണ്ട നമ്മുടെ വീട്ടിൽ നിന്നുകൊണ്ടു തന്നെ നമ്മുടെ ആവശ്യങ്ങൾക്കുവേണ്ടി തയ്ക്കുകയും ചെയ്യാം